അതെ അതെ ആണോ ആ എവിടത്തേക്കാണ് വേണ്ടത്

പാ ആധാർ കാർഡും പാൻ കാർഡും രണ്ടു ഫോട്ടോയും ആയിരത്തി അഞ്ഞൂറ് രൂപയും ആ പിന്നെ

ആണോ ആ പോസ്റ്റിന് അത് പ്രത്യേകിച്ച് പൈസയാകും കേട്ടോ പോസ്റ്റിന് ആ ഒരു പോസ്റ്റിന് അയ്യായിരം രൂപയ്ക്കടുത്താവും

ആ അത് ഇപ്പം പോസ്റ്റ് ഒക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് നിലവിൽ പോസ്റ്റ് കിടപ്പില്ല ഇനി അതൊക്കെ വരണം ആ ഒരു ഒത്തിരി താമസം ഒന്നും വരില്ല ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെ എങ്കിലും തരാൻ പറ്റുമായിരിക്കും ആണോ ആ ഞാൻ ഇവിടെ ഓഫീസുകാരോട് പറയാമേ എന്നിട്ട് ആ ഞാൻ നോക്കട്ടെ എന്നിട്ട് സംസാരിക്കാം ഏതായാലും നിങ്ങൾ ആൾ നേരിട്ട് വരണം നിങ്ങൾ നേരിട്ട് വരണം കേട്ടോ ആ ആധാർ കാർഡും പാൻ കാർഡും രണ്ട് ഫോട്ടോയും ആയിരത്തിഅഞ്ഞൂറ് രൂപയും ആയിട്ട് ആൾ നിങ്ങൾ നേരിട്ട് ഓഫീസിൽ വരണം കേട്ടോ ഓ ആ അത് ഇപ്പം നിങ്ങൾ ഏതായാലും നേരിട്ട് വാ നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കാം അന്നേരമല്ലേ അറിയുള്ളൂ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിപ്പോൾ അങ്ങനെ സാർ വലിയ കുഴപ്പം ഒന്നുമില്ല നിങ്ങൾ ഏതായാലും വന്നൊന്ന് സംസാരിക്ക് നിങ്ങൾ സോപ്പിട്ട് ഒക്കെ സംസാരിച്ച് നോക്ക് അന്നേരത്തേക്ക് ചിലപ്പം ഇതാകുമായി തരുമായിരിക്കും ഇത്തിരികൂടെ നേരത്തെ ഒക്കെ തരുമായിരിക്കും ഉം ആ ആ പോസ്റ്റിൻ്റെ പൈസയും കൂടെ ആവും ഒരു പോസ്റ്റ് മതിയായിരിക്കുമോ അങ്ങോട്ട് വരാൻ ലൈൻ വ വലിക്കാൻ ആ ഹാ ഹാ ആ ഒരു പോസ്റ്റ് നമുക്ക് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ പിന്നെ പോസ്റ്റിൻ്റെ പൈസ ആവും കേട്ടോ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും പിന്നെ ലൈൻ വലിക്കാനൊക്കെ വരുന്നവർക്കും ഒക്കെ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം ആ നിങ്ങൾ നേരിട്ട് ഏതായാലും ഓഫീസിൽ വന്ന് ഈ രേഖകളൊക്കെ ഹാജരാക്കണം ഈ രേഖകൾ ഒക്കെ ഹാജരാക്കി കഴിയുമ്പോഴത്തേക്കിന് അത് അവിടുന്ന് ബാക്കിയുള്ളത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ പറയാം പിന്നെ ആ വീട് അടുത്തുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ അവരുടെയൊക്കെ പറമ്പിൽ കൂടെയൊക്കെയാണോ ഈ ലൈൻ വരുന്നത് വഴിയിൽ കൂടെ ആ വഴിയിൽ കൂടെ ആകുമ്പം എന്നാൽ കുഴപ്പമില്ലായിരിക്കും ആ നോക്കാം നമുക്ക് ആ നിങ്ങൾ ഏതായാലും വന്ന് നിങ്ങളുടെ അപേക്ഷ ഒക്കെ താ വന്നിട്ട് അപേക്ഷ ഇവിടെ ഒരു ഫോം ഒക്കെ ഫിൽ ചെയ്ത് തരണം ഇത്രയും രേഖകളും ഒക്കെ തരണം അപ്പോൾ അത് തരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ എന്നാ എന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യാം കേട്ടോ ആ ഒത്തിരി താമസിക്കേണ്ട നേരത്തെ വന്ന് അപേക്ഷ ഒക്കെ താ അന്നേരം എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അന്നേരം നേരിട്ട് വാ ഏതായാലും ആ ആ ശരി എന്നാൽ ഓക്കെ